നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല കോളേജ് എന്നു പറയുന്നത് ഗവൺമെൻ്റ് കോളേജ് ഉള്ള ഗവൺമെൻ്റ് കോളേജ് ആണ് പിന്നെ ഉള്ളത് ഒരു മേരി മാതാ കോളേജ് ഉണ്ട് എൻ്റെ അനിയത്തി ഗവൺമെൻ്റ് കോളേജിലാണ് പഠിക്കുന്നത് അവിടെ നല്ലരീതിയിൽ സ്റ്റുഡൻ്റ്സിനു കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സ് ലഭിക്കുന്നുണ്ട് നല്ല കോളേജാണ് അദ്ധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തുസൂക്ഷിക്കുന്നൊരു കോളേജാണ് നല്ല കുട്ടികളെ നല്ലരീതിയിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നൊരു കോളേജാണ്